നെയ്ത്തിലും തുന്നലിലും എനിക്കു പരീക്ഷിക്കാൻ ആഗ്രഹം എന്നു പറയുന്നത് നമ്മുടെ ട്രഡീഷണലായുള്ള ഡ്രസ്സുകൾ അതായത് സെറ്റ് സാരി സെറ്റ് മുണ്ട് പട്ടുപാവാട ആണുങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ കുർത്ത അങ്ങനെയുള്ള ഡ്രസ്സുകളിൽ എനിക്ക് മറ്റേ നമ്മുടെ ക്ഷേ കലകൾ അതായത് കേരളത്തിൻ്റെ തനതു കലകൾ ഇപ്പോൾ കഥകളി തെയ്യം അങ്ങനെയുള്ളതൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട് അതൊന്നു പരീക്ഷിക്കാൻ ആഗ്രഹമുണ്ട് അതെന്നു പറയുമ്പോൾ നമ്മൾ കൂടുതലും നമ്മുടെ ട്രഡീഷണൽ എന്നു പറയുമ്പോൾ ഓണം ആ അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ള ഓണത്തിനൊക്കെ നമ്മൾ കൂടുതലും സെറ്റും മുണ്ടും ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ട്രഡീഷണലോ ഡ്രസ്സ് ധരിക്കുന്നത് അപ്പം അതിനകത്തൊരു വെറൈറ്റി കൊണ്ടു വരണമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒന്നല്ലെങ്കിൽ ഓണത്തിൻ്റെ പൂക്കളം പോലെ പൂവിൻ്റെ അല്ലെങ്കിൽ കഥകളി തെയ്യം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ഷേത്ര കല ഒരു ക്ഷേത്രത്തിൻ്റേതായ രീതിയിലുള്ള ചെറിയ നമ്മുടെ കൃഷ്ണൻ ഭഗവാൻ്റെ കൃഷ്ണനെ ആ ആലില അങ്ങനെയൊക്കെ നമ്മൾക്ക് അങ്ങനെ പരീക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കൊരു കുറച്ചുംകൂടി നമ്മുടെ ട്രഡീഷണൽ ആഘോഷങ്ങൾക്കൊക്കെ വളരെ നല്ലതായിരിക്കുന്നു എന്നു തോന്നുന്നുണ്ട് അപ്പം അതൊന്നു പരീക്ഷിച്ചാൽ കൊള്ളാമെന്നു ആഗ്രഹമുണ്ട്